എൻ്റെ പ്രദേശത്ത് പുസ്തക ശാലകളൊക്കെ ഉണ്ട് ഏത് പുസ്തകമാണ് വായിക്കാൻ കൂടുതലിഷ്ടം എന്ന് ചോദിച്ചെന്നാൽ കൂടുതൽ കഥകളോടാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണങ്കിലും കൂടുതൽ കഥകളോടാണ് താല്പര്യം അപ്പോൾ കുറെ കഥാ കഥയെഴുതുന്ന ബുക്ക് നോവലിനോടത്ര താല്പര്യമില്ല പക്ഷേ ഈ ഓൾഡ് സ്റ്റോറീസ് ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പം അതിനോടാണ് കൂടുതൽ താല്പര്യം നന്നായിട്ട് അത് ആ ഞാ ഞാനങ്ങനെ വായിച്ച് എനിക്ക് എൻ്റെ ഒര് അറിവില് ഞാനങ്ങനെ ബുക്കൊക്കെ എഴുതുവായിരുന്നു നേരത്തേന്ന് പറഞ്ഞാൽ ഒരു ചെറുപ്പ കാലഘട്ടത്തില് അങ്ങനേക്കെ ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനിയൊന്നും ഇല്ല പക്ഷെ ആ പുസ്തക വിപണിയില് എല്ലാം കിട്ടുവായിരുന്നു നോവൽ ഇംഗ്ലീഷ് ആണേൽ മലയാളം ആണേൽ എല്ലാത്തിനും പബ്ലിഷ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാ എനിക്കു കൂടുതല് ഇഷ്ടപ്പെട്ടത് ഈ കഥ പോലെ അങ്ങനെയൊക്കെയാണ് എനിക്കു കൂടുതല് ഫേവറബിൾ ആയിട്ട് തോന്നിയത്